ഞാൻ ഓൺലൈനായിട്ട് ഒരു മോയിസ്റ്ററൈസർ ഒരു രണ്ടാഴ്ച മുൻപ് വാങ്ങിയിട്ടുണ്ടായിരുന്നു മാമാ എർത്തിൻ്റെ മഞ്ഞളിൻ്റെ ഒരു ഉൽപ്പന്നമായിരുന്നു അത് ആദ്യം വാങ്ങിക്കുമ്പോൾ അതിൻ്റെ റിവ്യൂ എല്ലാം നോക്കി അപ്പം നല്ല റിവ്യൂ ആയിരുന്നു കിട്ടിയത് പക്ഷേ സാധനം കയ്യിൽ കിട്ടിയിട്ട് ആകുമ്പഴേക്കും അതിൻ്റെ പകുതി മാത്രമേ അളവുണ്ടായിരുന്നു അളവ് നല്ലോണം കുറവായിരുന്നു ക കൂടാതെ ഇതിൻ്റെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് സാധാരണ ഓർഡർ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞായിരുന്നു സാധനം എത്തുന്നത് എന്ന് പറഞ്ഞത് പക്ഷേ രണ്ടാഴ്ച കഴിഞ്ഞാണ് സാധനം കയ്യിൽ കിട്ടുന്നത് അത് വളരെ ഇതിൻ്റെ വളരെ വലിയൊരു പോരായ്മയായിരുന്നു കൂടാതെ ഇത് ഈ മോയ്സ്ചറൈസർ ഉപയോഗിക്കുമ്പോഴത്തേക്കും മുഖത്ത് നിറയെ കുരു വരുന്നുണ്ട് കൂടാതെ ഇതിൻ്റെ മണം അത്ര നല്ലതായിരുന്നില്ല ഉപയോഗിക്കുമ്പോൾ അത്ര നല്ലതായിരുന്നില്ല മണം രണ്ട് മൂന്ന് തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ മുഖത്ത് നിറയെ കുരുക്കൾ വരുന്നുണ്ട്